ഇന്നത്തെ കാലത്ത് മലയാള ഭാഷ സംസാരിക്കുന്നവര് നേരിടുന്ന പ്രധാനപെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് മലയാളത്തിൽ അധികം വായിക്കാനും എഴുതാനൊന്നും അറിയാത്തവരാണ് അവര് സംസാരിക്കുന്ന സമയത്ത് ചില വാക്കുകളൊന്നും അവർക്ക് സംസാരിക്കാൻ കിട്ടൂല ഇപ്പൊ കട്ടിയുള്ള ചില വാക്കുകൾ അവർക്ക് സംസാരിക്കാൻ കിട്ടി എന്ന് വരില്ല ആ ഒരു തപ്പലുണ്ടാകും സംസാരിക്കുമ്പോൾ അതുപോലെ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് മലയാളത്തിൽ സംസാരിക്കാൻ ആ ഒരു സംസാരിക്കാൻ പറ്റിയ ഒരാളെ കിട്ടുന്നില്ല അത് ഇപ്പോൾ ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയൊരു ആളെ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ എല്ലാരും ഇംഗ്ലീഷാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് പഠിക്കുന്നതും എഴുതുന്നതുമൊക്കെ അപ്പൊൾ അവർക്ക് ഇംഗ്ലീഷേ അറിയുള്ളു മലയാളത്തിൽ അങ്ങോട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോ എല്ലാവർക്കും അത് എല്ലാം എല്ലാ വാക്കുകളും ചിലർക്ക് മനസിലാകുന്നില്ല